ജില്ലയിലെ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്നത് കളക്ടറുടെ കളക്ട് കളക്ടറേറ്റ് ആണ് അതുകഴിഞ്ഞാൽ കളക്ടറുടെ താഴെ ബ്ലോക്ക് തലം വരുന്നുണ്ട് അതിന് താഴെ പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി അങ്ങനെ ഉള്ള ഭരണ വിഭാഗങ്ങൾ വരുന്നുണ്ട് ഇതിനൊക്കെ ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഐ എ എസ്സുകാര് ഐ പി എസുകാര് ഒക്കെ അതിൽ വരുന്നുണ്ട് അതിപ്പോൾ സംസ്ഥാ സർക്കാരാണ് അവരെ നിയോഗിക്കണത് അത് സംസ്ഥാനസർക്കാരിൻ്റെ ദേശീയസർക്കാരിൻ്റെയും ഒക്കെ പ്രാധിനിത്യം അതിലുണ്ട് ഞങ്ങളുടെ ജില്ലയിലുള്ള ഏതാനും എം എൽ എമാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിനും എം എൽ എമാർ ഉണ്ട് ഈ എംഎൽഎമാരിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ ആണ് പാലക്കാട് എം എൽ എ മുരളി ഉണ്ട് അതുപോലെ ആലത്തൂര് എം പി എന്ന് പറയണത് നമ്മുടെ കോൺഗ്രസിൻ്റെ എം പിയാണ് അങ്ങനെ ജില്ലകളുടെ പേര് ഓരോരുത്തരുടെയും വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ ഓരോ സ്ഥലങ്ങളിലും അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒക്കെ എം പിമാര് ഇങ്ങനെയൊക്കെ പുതിയ പുതിയ പിള്ളേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് മെയിനായിട്ട് ഇവരൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെക്കൊണ്ട് അധികം പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ അവരുടെ പാർട്ടി സമ്മതിക്കില്ല ഒരു പാർട്ടിക്കാരും കാരണം പാർട്ടിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇവരെക്കൊണ്ട് സമ്മതിക്കുന്നുള്ളൂ അല്ലാതെ ഇവർക്ക് എത്ര പൈസ കൊടുത്താലും അതൊക്കെ ലെവി കിവി കണ്ണിൽ കണ്ടതൊക്കെ പറഞ്ഞു പാർട്ടികൾ കയ്യടക്കി അപഹരിക്കുകയാണ് പിന്നെ ഇവർക്ക് കിട്ടുന്ന കാശുകൊണ്ട് വെയ്റ്റിംഗ് ഷെഡ് പണിയുക അങ്ങനെയുള്ള ചെറിയ ചെറിയ റോഡുകൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക സ്കൂളുകള് പ്രൈവറ്റ് സ്കൂളുകൾക്ക് പോലും സഹായം കൊടുക്കുക ഇതൊക്കെയാണ് എം എൽ എമാര് ചെയ്യുന്നത് അല്ലാതെ സാധാരണക്കാർക്ക് എം എൽ എമാരുടെ ഫണ്ടിൽ നിന്ന് കിട്ടൽ ഒക്കെ വളരെ കുറവാ അതിപ്പോൾ പഞ്ചായത്ത് തലത്തില് എം എൽ എ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ ഏതെങ്കിലും എം എൽ എമാര് കൊടുക്കുന്നുണ്ടാകും ഈ എം എൽ എമാരിൽ മഹാഭൂരിപക്ഷത്തിനും കൂച്ചുവിലങ്ങ് അവരുടെ പാർട്ടികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പാർട്ടികളുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരാണ് കൂടുതലും ഈ പാർലമെൻറ് ഇതിലുള്ള ഇന്ത്യൻ ഫെഡറൽ ഗവൺമെന്റിൻ്റെ പാർലമെൻറ് മണ്ഡലത്തില് പാർലമെൻറ് മണ്ഡലങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാരും അതെ കൂടുതൽ കോൺഗ്രസ്സുകാരാ ഇവരൊക്കെയും വലിയ അവരെക്കൊണ്ട് അവരെക്കൊണ്ട് എന്താണ് ചെയ്യിക്കേണ്ടത് എന്ന് ഇപ്പോഴും നമ്മുടെ പാർലമെന്റിന് അറിയുന്നില്ല അല്ലെങ്കിൽ അവര് എന്താണ് ചെയ്യണത് എന്ന് അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണ് ജനങ്ങൾക്ക് അവരിൽ നിന്നും ഉണ്ടാവണത് അല്ലെങ്കിൽ അവർക്ക് എന്ത് പ്രവർത്തനമാണ് ജനങ്ങൾ ചെയ്തുകൊടുക്കാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യിക്കേണ്ടത് എന്ന് ഇപ്പോഴും ആർക്കും അറിയണില്ല ഇപ്പോഴും പണ്ടത്തെ ചങ്കരൻ തെങ്ങിൻമേൽ തന്നെ